ആന്നല്ലോ ആന്നല്ലോ ആന്നല്ലോ സാറേ എന്തേ ആ ആ ഞാനാ സാറേ ആ ഞാനാണ്

ആ ആ എന്ത് പറ്റി സാറേ ആ ആ ആ ആ ഞാന് ഞാനാ ഞാനാ ഡെലിവറിയ്തേ എന്ത് പറ്റി സാറെ എന്നാ എന്താണ് കംപ്ലെയിൻറ്റ് വല്ലതും ആണോ ആന്ന് ആന്ന് ആ പറ ആ ഹാ ആ ഹാ ഹാ ഹാ അയ്യോ സാറെ അത് സീല്ഡ് സാധനമല്ലേ അതിൻ്റെ മണ്ടക്ക് സ്റ്റിക്കര് വരെ ഒട്ടിച്ച് സാറിൻ്റെ മുന്നെ വച്ചല്ലേ അത് ഓപ്പൺ ചെയ്ത ഞാൻ തന്നത് അതിനിപ്പോള് എന്താ എന്തു പറ്റി മൊബൈലിന് എന്തേലും കംപ്ലൈൻറ്റ് ഉണ്ടോ പോറലോ വല്ലതും ആ ഹാ ഹാ ആ അത് നമ്മള്ക്ക് ഇനി ഇപ്പോള് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സാറേ അപ്പോള്ത്തന്നെ നമ്മുടെ മുന്നെ വച്ച് തന്നെ നിങ്ങള് തുറന്നു നോക്കി അത് ചീ അത് കംപ്ലൈൻറ്റ് ഇല്ലാന്ന് ഉള്ളത് ഇത് നിങ്ങളുടെ തന്നെ കടമയാണ് അത് നമ്മള്ക്ക് തന്നുകഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് എന്നാ ഇത് നാല് നാലഞ്ച് ദിവസം ആയതല്ലേ അത് കഴിഞ്ഞ് നമ്മള്ക്ക് ആ അത് കഴിഞ്ഞ് കംപ്ലൈൻറ്റെയ്തിട്ട് കാര്യമൊന്നുമില്ല നമ്മള് അന്നാ അപ്പോള് തന്നെ നിങ്ങളുടെ നിങ്ങള്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് ഇതിനെപ്പറ്റി ഉണ്ടെങ്കില് നിങ്ങള് അന്നേരത്ത് തന്നെ നിങ്ങള് ഓപ്പൺ ചെയ്ത് സാധനം നിങ്ങള് ഓഡറെയ്ത മൊബൈലാണോ അതിനകത്ത് ഉള്ള മറ്റുള്ള ആക്സസ്സറി സാധനങ്ങളെല്ലാം ഉണ്ടോയെന്ന് ചെക്കിയ്യാന്നുള്ളത് നിങ്ങളുടെ കടമയാണ് അത് നമ്മൾക്ക് ഡെലിവറി ചെയ്തുകഴിഞ്ഞാല് പിന്നെ നമ്മ നമ്മളോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആ ആ അത് നമ്മള് നമ്മള് സാധനം വാങ്ങുമ്പോള് എപ്പോഴും ആളുടെ മുന്നെ വെച്ച് ഡെലിവറി ബോയിടെ മുന്നെ വച്ചുതന്നെ നിങ്ങളത് തുറന്നുനോക്കി എടുക്കാന്നുള്ളതേയുള്ളു ഡെലിവറി ചെയ്തുകഴിഞ്ഞാല് നമ്മള്ക്ക് പിന്നെ അതിന് കംപ്ലെയിൻറ്റെയ്തിട്ട് കാര്യമൊന്നുമില്ല അതിനാത്ത് സാധനം ഉണ്ടോന്നോ ഇല്ല്യോന്നോ ഒക്കെ നമുക്ക് അതും കാര്യമില്ല നിങ്ങള് നോക്കി എടുക്കാന്നുള്ളതാണ് ആ

ആന്നോ

ആ ആ അങ്ങനെയുണ്ടെങ്കില് ഞാൻ ഞാൻ ഞാൻ വന്ന് കളക്റ്റെയ്ത് തിരിച്ചയച്ചോളാം കുഴപ്പമില്ല ആ അങ്ങനെയുണ്ടെങ്കി ഞാന് ഒരു കാര്യം ചെയ്യാം എൻ്റെ മാനേജരുടെ നമ്പര് തരാം ആ ആ മാനേജറെ വിളിച്ച് സംസാരിക്കുന്നതായിരിക്കുമല്ലോ അതിന് ബെറ്റർ നമ്മള്ക്കിതിനാത്ത് ചെറിയ ആ ശമ്പളത്തിന് നമ്മള് ജോലി ചെയ്യുന്നെ നമുക്ക് ഒന്നീ നിങ്ങള് അവിടെ വച്ച് അന്നേരം തുറന്നുനോക്കിയിരുന്നെങ്കിൽ നമ്മള്ക്ക് റിട്ടേൺ കൊണ്ടുപോവുകയോ എന്തേലും ചെയ്യാം നമ്മളെ കയ്യീന്ന് പറ്റുന്നതല്ല അത് സാറെ ഓക്കെ ശരി താങ്ക്യു